ആ അതെ അതെയല്ലോ അതെയല്ലോ ആ ആണോ അതിനെന്താണ് എവിടെനിന്നാണ് വിളിക്കുന്നത് അത നിങ്ങള് എത്രയാണ് ബഡ്ജറ്റൊക്കെ എത്രയാണ് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് കോസ്റ്റ് കുറഞ്ഞത് വേണോ കൂടിയത് വേണോ എങ്ങനെയാണ് അതോ മിഡിലോ ആ ഓക്കെ ഓക്കെ ആവറേജ് അല്ലേ ഉ ആണോ ആ കല്യാണം ഓക്കെ ഓക്കെ സ്റ്റേജ് കാര്യങ്ങള് ആ നമ്മളവിടെ വന്ന് ചെയ്തുതരും സ്റ്റേജ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്ന് ചെയ്തുതരും ആ ചെയ്യും ചെയ്യും കാറ്ററിംഗും എല്ലാം ആ എല്ലാം ചെയ്തുതരും കേട്ടോ ആ ആ നിങ്ങള് ലൊക്കേഷൻ പറഞ്ഞാല് നമ്മളവിടെ വന്നിട്ട് ചെയ്ത് തരുന്നതാണെല്ലാം ആ ഓക്കെ ഓക്കെ അവിടേക്ക്

റേറ്റ് നമ്മള് ഫുഡ് സ്റ്റേജ് പിന്നെ വെഡിംഗ് കാർഡ് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ വെഡിംഗ് കാർഡ് അതൊക്കെ ഫോട്ടോഗ്രാഫര് എല്ലാം നമ്മളാണോ ആ ഓക്കെ ഒരു പത്തിൻ്റെയുള്ളില്

എത്രയാണ് കാര്ഡൊക്കെ എത്ര വേണം കാർഡൊക്കെ എത്ര വേണം വെഡിംഗ് കാഡ് എത്രയെണ്ണമുണ്ട് എത്ര ആൾക്കനുസരിച്ചിട്ട് നമ്മളതിൻ്റെ എമൗണ്ട് പറയും ആ ഓക്കെ ഓക്കെ നമ്മള് അതിൻ്റെ നിങ്ങളെത്രയാള് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ റേറ്റ് പറയുന്നത് അഞ്ഞൂറാളുടെ പരിപാടിയൊക്കെയല്ലേ അത് നമ്മള് അറിയിക്കാം നമ്മള് നോക്കിയിട്ട് അറിയിക്കാം ആ ഓക്കെ ഓക്കെ നിങ്ങള് ഉറപ്പാണെങ്കിൽ നമ്മള് ചെയ്യേണ്ടത് ഓക്കെ നമ്മളവിടെ വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ചിട്ട്